വ്യക്തികളിൽ ആത്മവിശ്വാസവും ആത്മാനഭിമാനവും വളർത്തിയെടുക്കാൻ സ്പോർട്സിന് വളരെ വലിയ പങ്ക് തന്നെ ഉണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും ഉള്ള ചെറുപ്പക്കാർ തങ്ങളുടെ കഴിവുകൾ വച്ച് ഓരോ സ്പോർട്സ് മേഖലയുടേയും ഏറ്റവും മുകളിൽ എത്തിയിരിക്കുവാണ് അത് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് തങ്ങൾക്ക് എത്താൻ പറ്റാത്തിടത്ത് തൻ്റെ തങ്ങളുടെ കഴിവ് വച്ച് അവർ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സ്പോർട്സ് പങ്കെടുക്കുന്ന ഏവർക്കും വേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ തങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തങ്ങളാദ്യം മനസ്സിലാക്കുക എന്നിട്ട് അതിന് വേണ്ടി പ്രയത്നിക്കുക അത് തന്നെ അത് നമുക്ക് ഉറപ്പായ നമ്മുടെ കഠിനാധ്വാനം ഉണ്ടങ്കിൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ

നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഇന്ത്യയെ അഭിമുഖീകരിച്ച് പലരും ഫുട്ബോളാകട്ടെ ക്രിക്കറ്റാകട്ടെ എന്ത് സ്പോർട്സയാലും അത് ഇന്ത്യയെ അഭിമുഖീ അഭിമുഖീകരിച്ച് ഓരോ രാജ്യത്തിന് മുന്നിൽ പോകുമ്പോൾ രാജ്യത്തിന് എതിരെ പോകുമ്പോഴും നമുക്കഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് അവർ മെഡലുമായി തിരിച്ച് വരുമ്പോൾ അത് ഏറെ അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം ഇവിടെ നമ്മൾ ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ സ്പോർട്സ് വ്യക്തികളിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാക്കുവാൻ വളരെ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്